നമ്മുടെ കാലാവസ്ഥ പലപ്പോഴും നമ്മൾക്ക് കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ അല്ല കാലാവസ്ഥകൾ പോകുന്നത് നമ്മുടെ കൃഷി ചെയ്യുമ്പോൾ നമ്മളുടെ മഴ കൂടി കഴിഞ്ഞാൽ നമ്മുടെ കൃഷി നശിച്ച് പോകുന്നു വെയിൽ കൂടിയാൽ നമ്മുടെ കൃഷി നശിച്ച് പോകുന്നു മഴക്കാലത്ത് നമ്മുടെ കൃഷി എന്ന് പറഞ്ഞാൽ ഏലം പോലെ ഉള്ള കൃഷികൾക്ക് ചീച്ചിൽ രോഗം വരും ചീച്ചിൽ രോഗം വന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഏലം ഏലത്തിന് നമുക്ക് ശക്തമായ മരുന്നുകൾ അടിക്കാൻ പറ്റത്തില്ല കാരണം ഓർഗാനിക്ക് സിസ്റ്റത്തിലാണ് ഏലം കൊണ്ടു പോകേണ്ടത് അതിന് നമ്മൾക്ക് ചെയ്യേണ്ട കാര്യം അന്ന് കുമൽ രോഗം വരും വരുമ്പോൾ നമ്മൾ വിപണിയിലുള്ള ഏറ്റോം കുറഞ്ഞ നല്ല സാധനമായ ബോഡർ മിക്സ്ച്ചറ് അല്ലെങ്കിൽ കുമ്മായം അല്ലെങ്കിൽ തുരിശ്ശ് ഇങ്ങനുള്ള ഐറ്റംസ്സ്കളാണ് നമ്മൾ സാധാരണ നമ്മുടെ ഏലത്തിന് കൊടുക്കേണ്ടത് നെൽ കൃഷി ചെയ്യാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് മഴക്കാലത്ത് നമുക്ക് കുഴപ്പമില്ല അത്യാവശ്യം നല്ലതാണ് പക്ഷേ കാറ്റ് കേട് വന്ന് കഴിഞ്ഞാൽ അതിന് മോശമാവും അപ്പോൾ നമ്മൾക്ക് മഴക്കാലം കഴിയുമ്പോൾ ഇതിന് പലപ്പോഴും പൂപ്പൽ രോഗങ്ങൾ നല്ല വെയിൽ ഉള്ള പൂപ്പൽ പൂപ്പല് വര്ന്നു അത് കഴിഞ്ഞ് വേര്ശീച്ചിൽ വരുന്നു കൊടിയേന്ന് പറയുന്ന സാധനം കുരുമുളകിൻ്റെ ഏറ്റോം കൂടുതൽ മഴക്കാലത്ത് വരുന്നത് കുരുമുളകിൻ്റെ വേര് നശിച്ച് പോകുന്നു വേര് നശിച്ച് പോകുന്നെങ്കിൽ ആ വേര് നശിക്കാതിരിക്കാൻ വേണ്ടി മരുന്ന് ഒഴിച്ച് കൊടുക്കണം മരുന്ന് ഒഴിച്ച് കൊടുത്തില്ല എങ്കിൽ നമ്മുടെ കുരുമുളക് പാട് ദുരിതപാട്ടമാവും അതുപോലെ തന്നെ കൊടി വേനൽ കാലം ആകുമ്പോൾ തോറും കൊടി വാടും വാടാതിരിക്കണം എങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം ഒഴിച്ച് നനച്ച് നമുക്ക് പൊതിഞ്ഞ് കെട്ടണം പൊതിഞ്ഞ് കെട്ടിയാൽ മാത്രമേ കുരുമുളക് നമുക്ക് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളു അതുപോലെ തന്നെ ഏലം ആണെങ്കിലും നമുക്ക് സംരക്ഷിക്കണം എങ്കിൽ നമുക്ക് ഏലത്തിൻ്റെ മോളിൽ ഗ്രീൻ നെറ്റ് കൊട്ടി കൊടുക്കണം കാരണം കാലാവസ്ഥ ഭയങ്കര ചൂടായിക്കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കരിച്ചിലേക്കും ജലാംശം കുറഞ്ഞോണ്ടിരിക്കുന്ന കാലഘട്ടത്ത് മഴ കുറയുന്നത് അനുസരിച്ച് ജലാംശം കുറയും നമ്മൾ നമുക്ക് വെള്ളത്തിൻ്റെ ദൗർഭല്യം കുറയുന്നതിന്റെ പേരിൽ നമുക്ക് അതിൻ്റെ ചോട് ചപ്പിട്ട് കൊട്ത്ത് അതിനെ സംരക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ തെങ്ങ് ആണെങ്കിൽ തെങ്ങിന് നമ്മൾ വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ചോട്ടിൽ പൊതയിടണം പൊതയിട്ട് അതിനെ സംരക്ഷിക്കണം സംരക്ഷിച്ചാൽ മാത്രമേ അത് അതുപോലെ തന്നെ ഈ തെങ്ങിന് എപ്പോഴും ചെല്ല് ഈ കൊമ്പൻ ചെല്ലി ശല്യം എന്ന് പറഞ്ഞ ഒരു പ്രാണി ഉണ്ട് അത് വന്നാൽ തെങ്ങിൻ്റെ കൂമ്പ് നശിപ്പിക്കും അതു കൊണ്ട് തെങ്ങിൻ്റെ കവ്ള്കളിൽ ഞങ്ങൾ ഇടുന്നത് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ മണൽ അത് പോലെ തന്നെ ചാരം ഇങ്ങനെ ഉള്ള ഐറ്റംസിലക്കയ്ൻ്റെ കവ്ൾളിടും കവിൾള് വേപ്പിൻ പിണ്ണാക്കിട്ട് കഴിഞ്ഞാൽ വണ്ടുകളുടെ ശല്യം കുറഞ്ഞിരിക്കും അതുപോലെ തന്നെ ആണെങ്കിലും ഈ കവിളിൽ ഉപ്പിടുന്ന നല്ലതാണ് ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ തെങ്ങിന് നല്ല കായ് ഫലം കിട്ടും അതുപോലെ തന്നെ നമ്മൾക്ക് കൃഷി പലതും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോഴും ഈ കീടങ്ങളെ നികത്താൻ ഉള്ള ചെറിയ ചെറിയ കൊക്കോ മരുന്ന്കളക്കെ ഉപയോഗിക്കേണ്ടി വരും പിന്നെ കുഴികൾ കത്തിക്കുന്ന ചാരമിട്ട് നല്ലതാണ് കൃഷിക്ക് ചാരം കൊടുത്ത് കഴിഞ്ഞാൽ കൃഷി നല്ല രീതിയിൽ ചെറിയ പച്ചക്കറികളൊക്കെ എടുക്കാൻ പറ്റും പച്ചക്കറികൾക്ക് ചെറിയ നമ്മൾ ചെറിയ പൊകല കൃഷി പൊകല കൊണ്ട് ഉള്ള മരുന്ന് കഷായം അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഒക്കെ നമുക്ക് ചെയ്ത് നമുക്ക് ഇത് എടുക്കാൻ പറ്റും കാലാവസ്ഥ വ്യതിയാനം നമ്മളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും വൃക്ഷങ്ങൾ നമ്മൾ വെട്ടാതിരിക്കാൻ നമുക്ക് പറമ്പിൽ നല്ല തണുപ്പ് കിട്ടണം എങ്കിൽ നമുക്ക് വൃക്ഷങ്ങൾ വേണം വൃക്ഷങ്ങൾ എല്ലാം വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂട് ഉണ്ടാാവും ചൂട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ആ കൃഷി എല്ലാം നശിച്ച് പോകും അത്കൊണ്ട് പരമാവധി നമ്മൾ വൃക്ഷങ്ങൾ വെട്ടാതെ നമ്മൾ പരമാവധി നോക്കുക എന്ന് മാത്രമാണ് അതിന്റെ അകത്ത് ചെയ്യാൻ ഉള്ള ഒരു കാര്യം